നമ്മുടെ മലയാള ഭാഷ എന്നത് നമ്മുടെ മലയാളികളുടെ സംസ്കാരം കൂടിയാണ് എന്നാൽ കാലം മാറുന്നതിനനുസരിച്ച് കോലം മാറും എന്ന് പറഞ്ഞത് കേട്ടിട്ടുണ്ടല്ലോ അതുപോലെത്തന്നെ ഇന്നത്തെ മലയാളികൾ മറ്റുള്ള ഭാഷകളുടെ വരവോടു കൂടി അവരുടെ സംസ്കാരങ്ങളേയും അവരുടെ ഭാഷകളേയും തേടിപ്പോവുകയാണ് ഇപ്പോൾ അന്യ അല്ലെങ്കിൽ അന്യസംസ്ഥാനങ്ങളുടെ അല്ലെങ്കിൽ മറ്റു ജില്ല മറ്റു രാജ്യങ്ങളിൽ നിന്നുമുള്ള ഓരോ ഭാഷകളും ഇപ്പം ഇംഗ്ലീഷായിക്കോട്ടെ ഹിന്ദി തമിഴ് ഇങ്ങനെ ഒരുപാട് ഭാഷകളുടെ കട കടന്ന് വരവോടു കൂടി മലയാള ഭാഷ അന്യം നിന്ന് പോകുകയാണ് ഇപ്പോൾ സ്കൂളുകളിലായിക്കോട്ടെ ഇപ്പോൾ കുട്ടികളെ ചേർത്തുമ്പോൾ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളിലേക്കാണ് കുട്ടികളെ ആദ്യം തന്നെ കൊണ്ട് പോയി ചേർത്തുന്നത് ഇപ്പം അവർക്ക് പഠിക്കാൻ ആകുന്നില്ലെങ്കിലും അതുപോലെ പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള കുട്ടികളായിക്കോട്ടെ അവരെപ്പോലും പറഞ്ഞ് മയക്കി അതിൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ കൊണ്ട് പോയി വിടുന്ന അവസ്ഥയാണ് കണ്ട് വരുന്നത് ഇപ്പോൾ ഇംഗ്ലീഷ് ഇപ്പം ഇപ്പം ഏതൊരു സ്ഥലത്തിപ്പോൾ നമുക്ക് ജോലിക്ക് പോയാലും ഇംഗ്ലീഷെന്ന ഭാഷ ഇല്ലെങ്കിൽ നമുക്കൊന്നും ചെയ്യാൻ കഴിയില്ല എന്നൊരവസ്ഥയിലേക്കാണ് മാറിയിരിക്കുന്നത് ഇപ്പോൾ ഫസ്റ്റായിട്ട് തന്നെ അവർ ഇംഗ്ലീഷ് അറിയുമോ കമ്മ്യൂണികേറ്റ് ചെയ്യാനറിയുമോ എന്നാണ് ചോദിക്കുന്നത് അതുകൊണ്ട് തന്നെ മലയാള ഭാഷ രണ്ടാം സ്ഥാനത്തേക്കായി മാറിക്കൊണ്ടേ ഇരിക്കുന്നു ഇപ്പോൾ എല്ലാവരും ഇംഗ്ലീഷ് അറിയാത്തവരെ കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷ് പഠിക്കാനായിട്ട് പോകുന്നു ഇപ്പോൾ മലയാള ഭാഷ അറിയുമെങ്കിൽ കൂടിയും നമ്മുടെ സംസാരിക്കുമ്പോൾ പൊതുവേ മലയാള ഭാഷയെക്കാൾ കൂടുതൽ ഇംഗ്ലീഷ് ഭാഷ ക ഭാഷയാണ് വായ്കളിലേക്ക് വരു വായിലേക്ക് വരുന്നത് അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ ഇന്ന് വന്നിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ സംസ്കാരവും അതുപോലെ മാറിയിട്ടുണ്ട് അത് നമുക്കിപ്പോൾ നമ്മുടെ ജീവിത രീതിയും അതുപോലെ നമ്മുടെ ഭക്ഷണ ഭക്ഷണ രീതി ആയിക്കോട്ടെ നമ്മുടെ വസ്ത്രരീതി ആയിക്കോട്ടെ എല്ലാം തന്നെ എല്ലാം തന്നെ മാറിക്കൊണ്ടിരിക്കുന്നു ഇപ്പോൾ വസ്ത്രത്തിലായിക്കൊട്ടേ ഭക്ഷണത്തിലായിക്കോട്ടേ നമ്മുടെ തനതായ ഭക്ഷണത്തിൽ നിന്നും ഒരുപാട് ഫാസ്റ്റ് ഫുഡുകളും അതുപോലെ ജങ്ക് ഫുഡ്സും ഉപയോഗിക്കാൻ തുടങ്ങി അങ്ങനെ ഒരുപാട് മലയാള ഭാഷയിൽ എല്ലാ മലയാളികളുടെ ഇടയിൽ തന്നെ ഒരുപാട് മാറ്റങ്ങളാണ് ഇന്ന് കാലക്രമേണ വന്നുകൊണ്ടിരിക്കുന്നു ഇരിക്കുന്നത്